ഞാൻ മോഡലിനെ ഒന്നും വരച്ചിട്ടില്ല പക്ഷെ എനിക്ക് ചിത്രം വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഫ്ലവറ് മല അതേപോലെത്തന്നെ മൃഗങ്ങളുടെ ചിത്രങ്ങളൾ ഏറ്റവും കൂടുതൽ ഞാൻ നന്നായി വരയ്ക്കുന്നത് ഒരു ആനേൻ്റെ ചിത്രമാണ് ആനേനെ വരയ്ക്കാൻ എനിക്കൊരുപാട് ഇഷ്ടമാണ് എല്ലാവരും പറയാറുണ്ട് നന്നായിട്ടുണ്ട് എന്ന് എനിക്ക് ആനേൻ്റെ ചിത്രം അതേപോലെത്തന്നെ മരങ്ങൾ കാട് ചെറിയൊരു വീട് വീടിൻ്റെ അടുത്ത് ഒരു പുഴ അതിൽക്കൂടെ ഒരു തോണി ഇതൊക്കെ വരയ്ക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പൂക്കൾ പൂക്കളെ വരയ്ക്കാൻ ഇഷ്ടമില്ലാത്തവരാരും ഇല്ല ക്രയോൺസുംകൊണ്ട് നമ്മൾ പെയിൻ്റ് കളറ് ചെയ്യാറുണ്ട് അതേപോലെത്തന്നെ സ്കെച്ച് പെന്ന് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കളർ ചെയ്ത് ചിത്രം സൂപ്പറാക്കുന്നത് അതേപോലെ തന്നെ പെൻസിൽ ഡ്രോയിങ്ങ് എനിക്കൊരുപാട് ഇഷ്ടമാണ് നല്ല നല്ല മലകളും ഒരു പ്രകൃതിയോട് പ്രകൃതി ഭംഗി ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു രീതിക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പെൻസിൽ ഡ്രോയിങ് കൊണ്ട് ചെയ്യാറ് നല്ല രീതിക്ക് തന്നെ ചെറിയൊരു വീടും മലയും മലേൻ്റെ മേലെ സൂര്യൻ ഉദിച്ച് നിൽക്കുന്നതും അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട്